ഞാൻ ഉപയോഗിക്കുന്ന ആപ്പുകൾ എന്നൊക്കെ പറയുന്നത് വാട്സആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാംമൊക്കെയാണ് അത് ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറയാണേൽ ഇപ്പം വാട്സ്ആപ്പ്ണെങ്കിൽ നമുക്ക് മെസ്സേജ് ഒരുപാട് പേർക്ക് പെട്ടന്ന് ഈസിയായിട്ട് അയക്കാം അത് സെക്യൂർ ആയിരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാം ഒരു ഗ്രൂപ്പിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒക്കെ അത് എപ്പോഴും ഉപയോഗിക്കും മെസ്സേജ് അയക്കാൻ മാത്രമല്ല പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് വീഡിയോസ് ഫോട്ടോസൊക്കെ അയക്കാനും അതുകൊണ്ട് സാധിക്കുന്നുണ്ട് പിന്നെ പോളിംഗ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മറ്റേ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നതും അതോടൊപ്പം തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസും മറ്റ് റീൽസ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ കാണാനും ശേഖരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് ഇതൊക്കെയാണ് ഈ വാട്സആപ്പൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ